ഗ്രാമത്തിൻ്റെ മനോഹാരിതയും ഗ്രാമത്തിൻ്റെ ആ പ്രകൃതി രമണീയമായ കാഴ്ചകളും ഗ്രാമത്തിൻ്റെ ആ സൗന്ദര്യവും നമ്മളെ ഏറെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു ഗ്രാമപ്രദേശം വിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വളരെ അധികം നമുക്കൊരു സ്വാതന്ത്ര്യവും സമാധാനവും അല്ലെങ്കിൽ ഒരു നല്ല ഒരു അന്തരീക്ഷവും പ്രധാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഗ്രാമമെന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും ഒരു നഗരത്തിന് തരാൻ സാധിക്കുകയില്ല നഗരത്തിലെ പൊടി പടലങ്ങളുടേയും അല്ലെങ്കിൽ ആ ഒരു ചൂടിൻ്റെയും ആഗോളതാപനങ്ങളുടേയും ഇടയിൽ പെട്ട് കഴിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും പ്രകൃതിരമണീയമായ പച്ചപ്പുകൾ വിരിഞ്ഞു നിൽക്കുന്ന പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടു കൊണ്ട് രാവിലെ കിളികളുടെ കളകളാരവം കേട്ടു കൊണ്ട് നദികളുടെ താളരഹിതമായ ചലനങ്ങൾ കണ്ടുകൊണ്ട് ഒക്കെ ജീവിക്കുന്നതാണ് എനിക്ക് വളരെയേറെ ഇഷ്ടം അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിനേക്കാൾ വേറൊന്നും നമുക്ക് നേടാനില്ല ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരേ അധികം സമാധാന പൂർണ്ണമായ ഒരു ജീവിതം പ്രധാനം ചെയ്യുന്നു ഗ്രാമമെന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ള നമ്മുടെ നില നിൽക്കാനുള്ള ആ താൽപര്യം തന്നെയാണ് നമ്മുടെ ഗ്രാമത്തെ ഏറ്റവും അധികം സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഗ്രാമത്തിൻ്റെ ആ ഗ്രാമീണമായ സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായ ഗ്രാമ നിവാസികളുടെ ആ സമീപനവും ഒക്കെ നമ്മളെ ഏറെ ആകർഷിക്കുന്ന ഒന്നു തന്നെയാണ് ഗ്രാമത്തിൻ്റെ സൗന്ദര്യം എപ്പോഴും നമുക്ക് മറ്റൊരിടത്തും ലഭിക്കാറില്ല നല്ല വെള്ളം നല്ല വായു നല്ല ആളുകൾ നന്മയുള്ള മനുഷ്യർ പിന്നെ കിളി നല്ല എന്ത അന്തരീക്ഷം നല്ല ഒരു സാഹചര്യങ്ങൾ ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇതൊക്കെ തന്നെയാണ് ഗ്രാമത്തിൻ്റെ മഹത്വം നമ്മെ വിളിച്ചു ഓതുന്നത് കൃഷി ചെയ്തു സ്വന്തം കുടുംബത്തെ തീറ്റി പോറ്റുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് അവരെ അവരുടെ അവരൊക്കെ ഗ്രാമപ്രദേശത്ത് ജീവിച്ചു ജനിച്ച് ജീവിച്ചവരാണ് ഗ്രാമത്തിലെ നിവാസികളുടെ ആ നിഷ്കളങ്കമായ ആ സ്നേഹവും ആ ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തോട് ചേർന്നു നിന്ന് ജീവിക്കുവാനാണ് ഇഷ്ടപ്പെടുക പക്ഷേ നഗര നഗരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു വീട്ടിലെ ആളുകൾക്ക് മറ്റൊരു വീട്ടിലെ ആളുകളെ അറിയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഞ്ചായത്തിലെ ആളുകളെ പോലും എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കുവാനും അവരെ തിരിച്ചറിയുവാനുമുള്ള അല്ലെങ്കിൽ അവരെ എല്ലാവരേയും അത് ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഒരു ശേഷി നമ്മൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഒരു മതിലിന് അപ്പുറമുള്ള വ്യക്തിയോടു പോലും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുന്നു വളരെ അധികം താൽപര്യമോ പൂർണ്ണമായ ഒരു ജീവിതമാണ് നമുക്ക് ഗ്രാമത്തിലൂടെ നമുക്ക് ലഭിക്കുക ഒരു നല്ല ഗ്രാമ അന്തരീക്ഷം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സമാധാന പൂർണ്ണമായ ജീവിതം തന്നെയാണ് നമുക്ക് പകർന്ന് നൽകുക ഗ്രാമത്തിലെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അതൊരു സന്തോഷകരമായ അനുഭവം നമുക്ക് പകർന്നു തരുന്ന ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും നഗരത്തിൽ ലഭിക്കുകയില്ല നഗര നിവാസികളേക്കാൾ എന്തുകൊണ്ടും നല്ല ജീവിതം കാഴ്ചവയ്ക്കുന്ന അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ഉടമകളാണ് ഗ്രാമത്തിലെ ആളുകൾ ആ നിഷ്കളങ്കതയും ആ ഗ്രാമീണ സൗന്ദര്യത്തെയും മറന്നു മറ്റൊന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് ആവുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും എൻ്റെ ഗ്രാമത്തെ വളരെ അധികം സ്നേഹിക്കുന്നതും ആ ഗ്രാമത്തിൻ്റെ ഭംഗി എല്ല എടുത്തും നിറഞ്ഞ് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതും എന്നും എൻ്റെ ഗ്രാമത്തോടൊപ്പം ജിവിക്കുവാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം